മത്സ്യ തൊഴിലാളി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്സവങ്ങളെന്നു പറയുമ്പോൾ അവർക്കു കടലിൽ ധാരാളം മത്സ്യം കിട്ടുന്നതാണ് അവരുടെ ഒരു ഉത്സവമായിട്ട് നമ്മള് കാണുന്നത് കാരണം ഒരു ചാകര ചാകര വരുമ്പോൾ അവരുടെ മനസ്സിലെ സന്തോഷവും നമുക്കാ ചാകര വരുന്ന സ്ഥലത്തു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ബോട്ടിലും വള്ളങ്ങളിലൊക്കെ ആയിട്ട് മത്സ്യങ്ങളെ കരയിലേക്കു കൊണ്ടുവരുമ്പോൾ അവരുടെ ആ സന്തോഷവും അവരുടെ ആ സ്നേഹവും അവരുടെ ആ ഒത്തൊരുമയും ആ കൂട്ടായ്മയും എല്ലാം കൂടെ കണ്ട് കഴിയുമ്പോള് നമുക്ക് തന്നെ ആണെങ്കിലും അത് കണ്ടുനില്ക്കുന്ന നമുക്ക് തന്നാണെങ്കിലും നമ്മുടെ മനസ്സിന് എന്തെന്നെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാവുന്നു തീർച്ചയായിട്ടും അവരുടെ ഉത്സവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് വ്യത്യസ്ത മത വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണെങ്കില് അതു തീർച്ചയായിട്ടും അവർക്ക് വ്യത്യസ്ത ഉത്സവങ്ങള് അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും മോസ്ക്കുകളിലായാലും അതൊക്കെ അവരുടേതായ രീതിയിലുള്ളത് ഉത്സവങ്ങളിലാഘോഷിക്കുന്ന എന്നാൽ ഇവരുടെ പൊതു ഇവരുടെ പൊതു ഉത്സവം എന്നു പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ ചാകര തന്നാണ് ഈ ചാകരയാണ് അവരുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ട് അതിനെ ഒത്തൊരുമയോടെ അവര് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുംകൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ അവര് കൊണ്ടു പോവുന്ന സ്നേഹവും സന്തോഷവും ആ ആത്മാർത്ഥതയും ചേർന്ന ഒരു സന്തോഷം തന്നെ ആണ് അവരുടെ ചാകര എന്നു പറയുന്നത്